എല്ലാ പത്രങ്ങളിലും പ്രാദേശിക വാർത്തകളുണ്ട് പ്രാദേശികമായിട്ടുള്ള ഒരു പേജ് ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മളെ അടുത്തു തന്നെയാണെങ്കിലും ഈ കുമരകത്തെ സംബന്ധിച്ചടുത്തോളം ആ പാലം പണി രണ്ട് വർഷമായി ഇതേവരെ ആ പാലം പണി തീർന്നിട്ടില്ല അതുകൊണ്ട് മനുഷ്യൻ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പം കോട്ടയത്തു നിന്ന് ചേർത്തലയ്ക്കു പോകേണ്ടവർ ഒരു കുമരകത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു പതിനഞ്ചു മിനിറ്റെങ്കിലും നടന്നു വേണം അടുത്ത ബസ്സിൽ കയറാൻ അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ വലിയ വണ്ടികളൊന്നും വരാത്തതുകൊണ്ട് മറ്റൊ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പം പ്രാദേശികമായിട്ട് ഒരു അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാദേശിക വാർത്തയിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത് എല്ലാവരും വീടുകളിൽ ഇരുന്ന് ടീ വി വച്ചാലും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ അറിയണമെങ്കിൽ പത്രത്തിലൂടെയേ വരികയുള്ളൂ പിന്നെ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടീവിയിൽ ഉൾപ്പെടുത്തും പത്രം ആണ് ഇപ്പോൾ പ്രാദേശികമായിട്ട് എല്ലാവരും ആശ്രയിക്കുന്നത് കുമരകത്തെ സംബധിച്ചിടത്തോളം ഈ പാലം പണിയുടെയും റോഡിൻ്റെ സഞ്ചാരികൾക്ക് നല്ലതാണ് റോഡുകളെ കുറിച്ചൊക്കെ നിരന്തരം പത്രത്തിൽ പ്രാദേശികമായിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ കുമരകത്ത് ബോട്ട് ഇറങ്ങാനുള്ള നാല് കുന്ന് ഭാഗത്തെ റോഡ് ആകെപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് അതിലൊന്നും വേറെ ആരുമൊന്നും ചെയ്യാത്തതിന് പത്രത്തിൽ തെറിവരെ എഴുതുന്നുണ്ട് ഇപ്പോൾ ഈയിടെയായി അതിൻ്റെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു